വിശ്വസിച്ച് കഴിക്കാന് പറ്റുന്ന കാര്ഷികോല്പ്പന്നങ്ങള് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം കിട്ടാറില്ല ഇപ്പോൾ അരി പോലും ആണെങ്കിലും കുട്ടനാട്ടിലൊക്കെ ആണെങ്കിലും എന്തുമാത്രം എത്ര പ്രാവശ്യമാ കൃഷിക്ക് വിഷം അടിക്കുന്നത് അതൊക്കെത്തന്നെയല്ലേ ഈ പോയിവരുന്നത് നമുക്ക് അരിയൊക്കെ കിട്ടുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ അവർ കൃഷി ചെയ്ത് തന്നെ പുഴുങ്ങിയുണങ്ങി എല്ലാം അരിയാക്കുമായിരുന്നു ഇപ്പോൾ എല്ലാം ഈ മൂന്നും നാലും പ്രാവശ്യം വിഷം അടിച്ചേച്ചാൽ ആരും കഴിക്കാതെ നെല്ല് കൊടുക്കുകയാ അത് കഴിഞ്ഞ് ആ വരുന്ന അരിയിലൊക്കെ നമുക്ക് കിട്ടുന്നതും അതൊന്നും വിശ്വസിക്കാനൊന്നും പറ്റത്തൊന്നും ഇല്ല എത്ര പ്രാവശ്യമാ വിഷം അടിക്കുന്നത് പിന്നെ പച്ചക്കറികളാണെന്ന് പറഞ്ഞാലും ഇപ്പം നമ്മുടെ നാട്ടിലൊന്നും പച്ചക്കറി ചെയ്യാനൊരു പച്ചക്കറി കൃഷികളൊന്നും ചെയ്യാനൊന്നും ആരും ഇല്ല ഇപ്പം പുതിയ തലമുറയാണെങ്കിലും ഒന്നും ഇല്ല എല്ലാവരും വെളിയിലോട്ടൊക്കെ പഠിക്കാന് പോയി അങ്ങോട്ടങ്ങ് പോവുക സ്ഥലങ്ങളെല്ലാം ചുമ്മാതെ കാട് പിടിച്ചവഴിക്ക് അത് തന്നെയല്ല ബിസ്നെസ്സിന് വേണ്ടി ഈ കൃഷിയെല്ലാം പിന്നെ പാടങ്ങളെല്ലാംകൂടെ നികത്തി വീട് വെയ്ക്കുക ബിസ്നെസ്സിന് വേണ്ടിയിട്ട് ഇതെല്ലാം ചെയ്യുക അതുകൊണ്ട് കൃഷി ഒക്കെ നമ്മളെ നാട്ടില് ചെയ്യുന്നത് പിന്നെ ഇന്ന് വിഷം എല്ലാം അടിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ലതൊന്നും കിട്ടുന്നില്ല നല്ലതായിട്ട് ചെയ്യണമെങ്കിൽ ഈ എല്ലാ അഴുക്കായി പോവുന്നതുകൊണ്ട് കൂടുതൽ പേരും വിഷം അടിക്കും നമുക്കത് കിട്ടുന്നത് പിന്നെ കിട്ടുന്നത് എന്നുവെച്ചാൽ നമ്മുടെ വീടുകളിൽ ചെറുതായിട്ട് വല്ലതും നമ്മളൊക്കെ തന്നെ ചെയ്യുമെങ്കിൽ മാത്രമേ നല്ല ഇത് പച്ചക്കറിയൊക്കെ കിട്ടത്തും ഉള്ളൂ അപ്പോൾ എല്ലാ ദിവസം ഒന്നും നമുക്ക് പച്ചക്കറി അങ്ങനെ കിട്ടത്തില്ലല്ലോ നമ്മൾ മേടിക്കാന് പോവുമ്പം മേടിക്കുന്ന പച്ചക്കറി എല്ലാം വിഷം ഉള്ളതാ അവർ നല്ലത് വല്ലതും ഉണ്ടാവാന് വേണ്ടിയിട്ട് കുറേ വിഷങ്ങൾ ചേര്ത്ത് വെക്കും അതൊന്നും നമുക്ക് കഴിക്കാന് വിശ്വസിച്ച് കഴിക്കാനൊന്നും പറ്റത്തൊന്നും ഇല്ല പിന്നെ പിന്നെ സ്ഥലങ്ങൾ ആണെങ്കിലും ഇതെല്ലാം കെട്ടിപ്പൊക്കി വലിയ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും കൃഷി ഭൂമി എല്ലാം ഇപ്പം കെട്ടിപ്പൊക്കി വലിയ സ്ഥാപനങ്ങൾ വെയ്ക്കുന്നതുകൊണ്ട് നല്ല കൃഷിക്കാരും ഇല്ലാതായി പോരുകയാ അവര്ക്ക് ഗവണ്മെന്റ് അത്ര വല്യ ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂട അവര്ക്കും ബുദ്ധിമുട്ടാ അതുകൊണ്ട് നല്ല ഭക്ഷണങ്ങളൊന്നും നമുക്ക് മേടിച്ച് കഴിക്കാന് പറ്റത്തില്ല ഈ നല്ല ഈ മേടിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുന്നമ്പഴ്ത്തേക്കും എന്തെല്ലാം പ്രശ്നങ്ങൾ അവ ആരോഗ്യപരമായിട്ട് ഭയങ്കര ആശുപത്രിയിൽനിന്ന് കയറി ഇറങ്ങാതിരിക്കാന് പറ്റത്തില്ല എന്നും അസുഖം കൊച്ചു പിള്ളാര്ക്ക് ആണെങ്കിൽ വെളിയിൽനിന്ന് ഇത് മേടിച്ച് കൊടുത്താലേ പിറ്റേ ദിവസം തന്നെ കൊണ്ടുപോകണം കുഞ്ഞിപ്പിള്ളേരെയുംകൊണ്ട് പോയി ദിവസവും പിന്നെ ഹോസ്പ്പിറ്റലിൽ പോവുക വരിക രണ്ടുദിവസം കഴിയുമ്പം പിന്നെ സ്കൂളിലോട്ട് വിടുക അത് കഴിയുമ്പം പിന്നെയും അസുഖം പിടിച്ച് വരുക ഒരു സാധനം കഴിക്കാന് പറ്റേണ്ട കഴിക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഉടനെ വെളിയിൽനിന്ന് മേടിച്ച് കഴിക്കുന്ന ആണെങ്കിൽ ശർദ്ദിലാ ആര്ക്കും പിടിക്കത്തില്ല വയറ്റ് വയറ്റിലാര്ക്കും എല്ലാവര്ക്കും അസുഖമാ പ്രായം ഉള്ളവർക്ക് ആണെങ്കിലും കൊള്ളാം കൊച്ചു പിള്ളേർക്ക് ആണെങ്കിലും കൊള്ളാം സാധാരണക്കാര്ക്ക് പിന്നെയും ഇച്ചിരിയെങ്കിലും പിടിച്ച് നിൽക്കാന് പറ്റും എന്ന് തോന്നുന്നു പക്ഷേയെങ്കിൽ ഈ നല്ല ആഹാരം കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്